മതപരമായ അന്ധവിശ്വാസങ്ങളാണ് കുട്ടികളുടെ കല്യാണ സമയത്ത് ജാതകം നോക്കല് മുമ്പു കാലത്ത് ജാതകം ചേർന്നു എങ്കിൽ മാത്രമേ ഹിന്ദുക്കൾ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഇപ്പോൾ കല്യാണം കഴിച്ചുകൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ അവർ ഓരോന്നിനും നല്ല ദിവസങ്ങൾ നോക്കി ജാതകം നല്ല ദിവസങ്ങൾ ജ്യോതി ജ്യോത്സ്യൻ്റെ അടുത്തു പോയി നല്ല ദിവസങ്ങൾ തെരഞ്ഞെടുത്തു ആ ദിവസങ്ങളിൽ മാത്രമേ എല്ലാ നല്ല കർമ്മങ്ങളും ആരംഭിക്കുകയുള്ളൂ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുകയുള്ളൂ പിന്നെ നക്ഷത്ര ദിവസം നക്ഷത്രദിവസം ഒന്നും തുടങ്ങുകയില്ല പിന്നെ യാത്ര പോകുമ്പോൾ ശകുനം നോക്കും തുടങ്ങിയവയെല്ലാം ഹിന്ദു അന്ധവിശ്വാസങ്ങളാണ് അതേ സമയം ജാതകത്തില് ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് മുസ്ലിങ്ങളും അതേപോലെത്തന്നെ ക്രിസ്ത്യൻസും ഈ ജാതകം എല്ലാം നോക്കി നമ്മൾ കുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ടും ആ രീതി നമ്മൾ ഫോളോ ചെയ്തിട്ടും ചില കുട്ടികളുടെ കല്യാണം വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ ഇടയ്ക്കുവെച്ച് ബ്രേക്ക് ആവുന്നു അപ്പോൾ നിങ്ങൾ ജാതകം നോക്കിയിട്ടല്ലേ എന്നുള്ള ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അതിന് ആ പ്രശ്നങ്ങളെ നമ്മള് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ സാഹചര്യം എന്താണ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അത്രയേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ